കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയം ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ആറള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് ഒരു ട്രക്കിങ്ങ് നടത്തിയത് വളരെ മനോഹരമായിരുന്നു പ്രകൃതി രമണീയത എന്നൊക്കെ പറയാം അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ആറളം എന്ന് പറയുന്നത് നിറയെ പൂമ്പാറ്റകളും അതുപോലെ തന്നെ ജീവികളും കിളികളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഈ ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അവിടുത്തെ അവിടേക്ക് ഉള്ള ട്രക്കിങ്ങ് എന്ന് വെച്ചാൽ വളരെ ഒരു അടിപൊളി അനുഭവമാണ് തന്നത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടിട്ടാണ് പോയത് പക്ഷേ അവിടുന്ന് മറക്കാൻ ആകാത്ത ഒരു സംഭവം നടന്നു ഞങ്ങൾ ട്രക്കിങ്ങിനെടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വെറുതെ ഇങ്ങനെ ശബ്ദമുണ്ടാകാണ്ട് നടക്കണമെന്ന് നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പക്ഷേ എൻ്റെ കൂടെ വന്നതല്ല നമ്മുടെ പിന്നിലുണ്ടായിരുന്ന കുറച്ച് യാത്രക്കാരുണ്ട് അവർ ഒരുപാട് സൗണ്ടുണ്ടാക്കി അതുപോലെ തന്നെ എന്താ പറയാ വെറുതെ വൈൽഡായിട്ട് അവർ ബിഹേവ് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്തപ്പം അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾ ഇപ്പം കുരങ്ങുണ്ടായിരുന്നു നമ്മൾ കണ്ട കുരങ്ങുണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ പക്ഷികളുണ്ടായിരുന്നു പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു നിറയെ അപ്പോൾ ആന ആനയെ നമ്മൾ കണ്ടു ആന എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ആനക്ക് പൊതുവേ ഈ ഇവരിങ്ങനെ സൗണ്ട് ഉണ്ടാകുമ്പം ആന ഭയന്നു ആന ഭയന്നപ്പോൾ ആന ഇങ്ങോട്ടേക്ക് നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ട് നിന്നു അപ്പോൾ നമ്മളാകെ നമ്മളുടെ കൂടെ വന്ന എല്ലാവരും ഭയന്നപ്പോൾ ഗൈഡ് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ഭയങ്കര കൂളായിട്ട് അങ്ങനെ നടന്ന് പോകണം എന്നൊക്കെ നമ്മളോട് ഗൈഡ് ഇവിടുന്ന് നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ വൈൽഡ് ആയിട്ട് ബിഹേവ് ചെയ്തു കൊണ്ടേ ഇരുന്നു അങ്ങനെ അപ്പോൾ ആന പെട്ടന്ന് ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാൻ നിന്നു ആ നമ്മൾ ഒക്കെ പേടിച്ചിട്ട് പുറത്തേക്ക് ഓടി എല്ലാവരും പുറത്തേക്ക് ഓടി അതായിരുന്നു ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് അപ്പം നമ്മളെ ട്രക്കിങ്ങ് ഒരുപാട് ട്രക്കിങ് നടത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ട്രക്കിനിടെ ഒരു വന്യജീവി അല്ലെങ്കിൽ ഒരു വലിയ ആന നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പം എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത് ഒരിക്കലൂം നമ്മൾ ട്രക്കിങ്ങിനിടെ നമ്മൾ ട്രക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ വന്യജീവികളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല കാരണം അവരെ നമ്മൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഭയത്തിൽ അതിന് പ്രീകോഷൻ എന്നുള്ള ഒന്നാണ് ആ അതിന് വേണ്ടീട്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നത് അല്ലാണ്ട് നമ്മൾ കൂളായിട്ട് നടന്ന് പോയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കില്ല ഇപ്പോ ഒന്നാമത് നമ്മൾ ഈ സുഗന്ധ ദ്രവ്യങ്ങൾ അതായത് സ്പ്രൈ നല്ല മണമുള്ള സോപ്പ് എണ്ണ ഇതൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇതുപോലെ ഒരു വന്യജീവി സങ്കേതത്തിലൂടെ ഒരിക്കലും ട്രക്കിങ് നടത്താൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സൈലൻറ്റ് ആയിരിക്കണം ഒരിക്കലൂം അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളോ അല്ലെങ്കിൽ സംസാരമോ അങ്ങനത്തെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഒരു മണമോ അവരെ പ്രകോപിക്കുന്ന രീതിയിലുള്ള മണങ്ങളോ മണമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ കൂളായിട്ട് നമ്മൾ പോകണം